ഇപ്പോൾ കേരളത്തിൽ പല രീതിയിലുള്ള വ്യവസായം കൊണ്ട് നടക്കുന്ന പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഇപ്പം കേരളത്തിൽ പൊതുവെ കൃഷിക്കാരാണ് കൂടുതലായിട്ടും ഉള്ളത് ഇപ്പം കൃഷിക്കാരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള കൃഷിക്കാരുണ്ട് ഇപ്പം നേന്ത്രക്കായ ഞാലിപ്പൂവൻ അങ്ങനെ പല രീതിയിലുള്ള വാഴ കൃഷികൾ നടത്തുന്നുണ്ട് ഇപ്പം നേന്ത്രക്കായ ആണ് കൂടുതലായിട്ടും ആൾക്കാർ വെക്കുന്നത് അപ്പം അതിന് നല്ല രീതിയിലുള്ളൊരു വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ ഈ കാറ്റ് വീശുന്നതും പിന്നെ വെള്ളം കിട്ട് ഇല്ലായ്മയും അങ്ങനത്തെ കരണങ്ങളൊക്കെ കൊണ്ട് പല വാഴകളും ചീഞ്ഞ് പോകാനും കാറ്റടിച്ച് വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാകാറുണ്ട് അപ്പം കൃഷി ഭവനിൽ നിന്ന് ക്യാഷും കാര്യങ്ങളൊന്നും അതായത് ഇപ്പം അത് ഇൻഷൂർ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുകയുള്ളു അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ട് അപ്പം പല രീതീയിലുള്ള വ്യവസായങ്ങൾ ഇപ്പം തകർന്ന് കൊണ്ടിരിക്കുകയാണ് ഇപ്പം കൃഷിയൊന്നും അങ്ങനെ ആരും ഏറ്റെടുക്കാതെയായി ഇപ്പം സ്ഥലങ്ങളൊക്കെ വെറുതെ ഇട്ടിരിക്കുകയാണ് പലരും ഇപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പം സുഗന്ധ വ്യഞ്ജനത്തിനൊക്കെ നല്ല രീതിയിലുള്ള വില കുറവാണ് ഇപ്പം കുരുമുളകിനൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാലും മുന്നൂറ് നാന്നൂറ് ആദ്യത്തെ കലമൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു തൊള്ളായിരം ആയിരം രൂപയുടെ ഉണ്ടായിരുന്ന ടൈമിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മുന്നൂറ് നാന്നൂറ് രൂപക്കൊക്കെ ആണ് എല്ലാവരും മുളകും കാര്യങ്ങളൊക്കെ വിൽക്കുന്നത് ഇപ്പം കൊടി അങ്ങനെ തീരെ ഇല്ലാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്